ഹലോ ഇത് ഉബർ ഏജൻസി അല്ലെ ഞാൻ ഇന്നലെ ഒരു കാർ ബുക്ക് ചെയ്തിരുന്നു ടൂർ ഇന്ന് വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തതായിരുന്നു മോർണിങ്ങിലെക്കായിരുന്നു വിളിച്ചത് വേണം എന്ന് പറഞ്ഞത് അങ്ങനെ മോർണിങ്ങിൽ നൈൻ ഒ ക്ലോക്കിലേക്ക് വണ്ടി എത്താമെന്ന് ഏജൻസി പറഞ്ഞതുമാണ് ബുക്ക് ചെയ്തപ്പോൾ ഇന്ന് ഇപ്പോഴേ പതിനൊന്ന് മണിയായി കഴിഞ്ഞ് ഈ സമയമായിട്ടും വണ്ടി ഇതുവരെ ഇവിടെ എത്തിയില്ല അതുകൊണ്ട് എനിക്ക് എനി ഇന്നത്തെ ടൂർ പാക്കേജ് ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് അതുകൊണ്ട് ഇന്ന് വണ്ടി വേണ്ട ക്യാൻസ വാ അ ബുക്ക് ചെയ്ത കാർ ഇന്ന് ക്യാൻസൽ ചെയ്യണം അതിന് ഞാൻ തന്ന ക്യാഷ് എനിക്ക് റീഫണ്ട് ചെയ്തു തരണം അത് ചെയ്യുക എൻ്റെ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് ഇട്ടാൽ മതി പിന്നെ ഇന്നത്തെ പ്രോഗ്രാം ക്യാൻസൽ ആണ് ഓക്കേ ബൈ